രണ്ട് പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഒന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നാല് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് പതിമൂന്ന് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഒന്ന് ഏഴ് രണ്ടായിരത്തി മൂന്ന്